ഭാരത് ഗ്യാസ് ഏജൻസി അല്ലേ ഞാൻ ഇവിടെ തത്തംപിയിൽ നിന്നാണ് വിളിക്കുന്നത് പിന്നേയ് നമുക്ക് പണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഡെലിവറി ഒക്കെ നമ്മുടെ കറക്റ്റ് സമയങ്ങളിലൊക്കെ ആയിരുന്നു വന്നു കൊണ്ടിരുന്നത് രാവിലെയോ അല്ലേ വൈകിട്ടോ ആയിരുന്നു അപ്പത്തേനെന്ന് പറഞ്ഞാൽ സൗകര്യമാണ് അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്തേക്ക് എന്ന് പറയുമ്പം അതേ ജോലിക്ക് പോകുന്ന സമയം എന്നൊക്കെ പറയുമ്പോൾ ഈ നിങ്ങളുടെ സമയം മാറ്റിയെന്ന് എങ്ങനെ അറിയും അതൊന്നും ശരി അല്ല ആ സമയത്ത് ഞങ്ങൾക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ രാവിലെ എത്തുക കഴിയുന്നതും വൈകുന്നേരം ഞങ്ങളെല്ലാം ജോലിക്ക് പോയി കുട്ടികളൊക്കെ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന വൈകുന്നേരാകുമ്പോൾ സൗകര്യമാണ് അത് കഴിയുന്നതും വൈകുന്നേരം തന്നെ ഡെലിവറി നടത്താനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്